ആ ഹലോ ആരാണ് വിളിക്കുന്നത് അതെല്ലോ എന്നാ വിശേഷം ഉണ്ട് ഉണ്ട് എല്ലാത്തരം പഴങ്ങളും നമ്മുടെ കടയിലുണ്ട് ഇപ്പം ചക്കയൊക്കെ തുടങ്ങുന്നതേ ഉള്ളത്കൊണ്ട് നല്ല ചക്ക വേവിക്കാനുള്ളതും പഴവും നല്ല നാടൻ ഏത്തപ്പഴം ഉണ്ട് പിന്നെ നല്ല നെല്ലിക്കയുണ്ട് ചെറിയ നാടന് നെല്ലിക്കയും മുഴുത്ത നെല്ലിക്കയുണ്ട് എന്തൊക്കെയാണ് വേണ്ടത് എന്ന് പറഞ്ഞാൽ മതി

അതെ അല്ലെ അപ്പം ഇത് എങ്ങനെയാണ് ആ ചക്ക മുഴുവനോടെ വേണോ ചക്ക മുഴുവനോടെ വേണോ അതോ വെട്ടി പീസാക്കി വേണോ

ആ അത് എന്തോരം വേണം അതെയല്ലേ ആ നല്ല മുഴുത്ത ഏത്തക്ക ഓ ഏത്തക്കൊലയായിട്ട് ഇരിപ്പുണ്ട് അത് ഞാൻ നോക്കട്ടെ

ആ ഹാ നമ്മുടെ ഇവിടെ തന്നെ കൃഷി ചെയ്യുന്ന മ് ഏത്തക്കൊല നമുക്ക് കിട്ടിയിട്ടുണ്ട് ആ അത് പഴുപ്പിച്ച് വെച്ചിട്ടുണ്ടത് ഞാന് നോക്കട്ടെ ആ ആ അതിൽ നല്ലത് ഏറ്റവും നല്ലത് നോക്കി തരാം കേട്ടോ

വേണം അല്ലേ ആ ആ നാടന് മതിയല്ലേ ആ ഇവിടുത്തെ നെല്ലിക്ക ഉണ്ട് കേട്ടോ ആം ആ ഉണ്ട് ഉണ്ട് അത് എത്ര കിലോ വേണം അതെയല്ലേ ആ ഹാ ഓ ആ ഓക്കെ ഓക്കെ ആ ആ ഇതപ്പം ഇതെല്ലാം കൂടെ എന്നാലേ ഞാന് വീട്ടിലെത്തിച്ച് തരട്ടേ ആ അപ്പം ഞാൻ വീട്ടിൽ എത്തിച്ച് തരാം കേട്ടോ

ഓക്കേ അപ്പം ഞാനൊന്ന് വണ്ടിയില് കൊടുത്ത് വിട്ടിട്ട് വിളിച്ചേക്കാം കേട്ടോ ഓക്കേ താങ്ക്യൂ മ് ഓക്കേ